ഹലോ ആ ഇത് കേരളത്തിലെ ഗൈഡ് അല്ലേ ആ മാഡം ഞാനേ കേരളത്തിലേ അത്യാവശ്യം നല്ലൊരു മള്ട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് അറിയാന് വേണ്ടി വിളിച്ചതാണേ എവിടെയാണ് ഉള്ളതെന്ന് അറിയാന് വേണ്ടീട്ട് അപ്പം എന്റെ ബ്രെദറിന് ചെറിയൊരു നെഞ്ചു വേദന

ആ ഓക്കേ ആ ഇവിടെയൊക്കേ അല്ലാ ഇവിടെയൊക്കേ ഡോക്ടേഴ്സ് അത്യാവശ്യം നല്ല ആള്ക്കാര് തന്നെ ആയിരിക്കും അല്ലേ ഉണ്ടാവൂല്ലേ ആ ഓക്കേ

ആ ഇല്ല നമ്മൾ ക്യശ് നോക്കുന്നില്ല ഇങ്ങനത്തേത് ആയതു കൊണ്ട് നമുക്ക് വേറെ ചാന്സ് എടുക്കാന് പറ്റില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യം ബെറ്റര് ആയിട്ടുള്ള എവിടെയെങ്കിലും കാണിക്കാമെന്നു കരുതിയിട്ടാണ് ആ ആ ആ ഓക്കേ ആ ഓക്കേ ആ നമുക്ക് മാറ്റിയാലും കൊണ്ട് പോകാം വേറെ ഹോസ്പിറ്റല് ആയാലും ആ ഓക്കേ

ആ ഓക്കേ ആ ഓക്കേ മേഡം ഉണ്ടാവൂല്ലേ ഉണ്ടല്ലേ ഓക്കേ ആയിക്കോട്ടേ മേഡം ഞാൻ എന്തായാലും പോകുന്നതിനു മുൻപ് മേഡത്തിനേ കോണ്ടാക്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ എന്തായാലും

ഓക്കേ മേഡം